ആ ഹലോ എടി ഞാൻ വിളിച്ചതേ ഞാനൊന്ന് നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഡ്രൈവറെ പറ്റിയും ആ വണ്ടീനെപ്പറ്റിയൊക്കെ ഒന്നു ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ആ ആ ഫാമിലി ഉണ്ട് അതേ മറ്റേ താഴത്തെ ജംഗ്ഷനിൽ നിന്നാണ് വിളിച്ചത് അപ്പം വണ്ടി ഞാൻ അധികം വണ്ടിയൊന്നും എടുക്കില്ലല്ലോ അപ്പം ഇത്ര ദൂരം വരെ പോകാനായിട്ട് എത്രയാകും ചാർജൊക്കെ ആ അത്രയാണല്ലേ ആ ഇതിപ്പം ഒരു കിലോമീറ്റർ പോകാൻ എത്ര ആയിരിക്കും ഓ അത്ര ആയിരിക്കുമല്ലേ ആ ആ ഈ യാത്രയിൽ എത്ര പേരെ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റും എന്ന് വല്ലതും ആ വണ്ടീൻ്റെ ഇതിൽ

ആ ഡ്രൈവറെ കൂടാണ്ട് ഏഴു പേർക്ക് പോകാമല്ലേ ആ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും പോലീസ് കേസോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ഇല്ല അല്ലേ ആ വണ്ടിയിൽ എ സിയൊക്കെ വർക്കിംഗ് ആയിരിക്കുമോ ആ ആയിരിക്കുമല്ലേ കണ്ടീഷൻ വണ്ടി ആയിരിക്കുമല്ലേ ആ പോയാൽ സേഫ് ആയിരിക്കുമോ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ ആ ആ ശരി എന്നാൽ